വയനാട് ജില്ലയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നു പറയുമ്പോൾ വയനാട് ജില്ലയിൽ പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് പക്ഷേ അവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല വലിയ വലിയ ബിൽഡിങ്ങുകൾ മാത്രം ഉണ്ട് എന്നല്ലാതെ മരുന്നുകളോ ആവശ്യത്തിന് ഡോക്ടർമാരോ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ വയനാട്ടിലെ മെഡിക്കൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് എല്ലാ പ്രദേശങ്ങളിലും അതായത് എല്ലാ മുൻസിപ്പാലിറ്റികളിലും ജില്ല പഞ്ചായത്തുകളിലും ആരോഗ്യ കേന്ദ്രങ്ങൾ നടപ്പാക്കുകയും അവിടെ മുതിർന്നവർക്ക് പ്രായമായവർക്കു വേണ്ടിയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ബ്ലഡ് പ്രഷർ പ്രഷർ ചെക്കിങ്ങ് ഷുഗർ ചെക്കിങ്ങ് അങ്ങനെ പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആരോഗ്യ സംരക്ഷണം എന്നു പറയുന്നത് വളരെ വലിയ ഒന്ന് തന്നെയാണ് വയനാട് ജില്ലയിലെ ആരോഗ്യ സംരക്ഷണം കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്